സാങ്കേതിക വിദ്യയുടെ ഉയർച്ച കാരണം കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഒന്നാമത് എന്താ വച്ചാൽ നമ്മളെ ഫോണിൻ്റെ ഉപയോഗം സാങ്കേതിക വിദ്യയുടെ ഒരു തുടക്കമാണ് ഒരു കുടുംബത്തിലെ നാല് പേരുണ്ടെങ്കിൽ ആ നാല് പേരും എന്താണ് ഫോണ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുകയും സാങ്കേതിക വിദ്യ ഉയരുകയാണ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടുതന്നെ പരസ്പരം നമ്മൾ ഒന്നും സംസാരിക്കാതെ ഒരു എന്താ ഒരു ഊമയെ പോലെയാണ് കുടുംബത്തിൽ ഉണ്ടാവുക അപ്പോൾ എന്താ അപ്പോൾ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ തടസ്സപ്പെടുത്തുകയല്ലേ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഫോണിൽക്കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതുപോലെ അല്ലല്ലോ നമ്മുടെ ഒരു ഒരു കുടുംബത്തിൽ ഉണ്ടാവുമ്പോൾ സംസാരിക്കുക അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ സാങ്കേതിക വിദ്യ നമുക്ക് തടസ്സപ്പെടുന്നു തടസ്സമായിട്ടുണ്ട് അതുപോലെതന്നെ എന്താ പറയുക നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫോണ് വേണം എന്തിനു ആവട്ടെ അത് ഫോണ് ഫോണിൻ്റെ ഉപയോഗം ഫോണ് വേണം നമുക്ക് എന്തിനായാലും അപ്പം അവിടെ കമ്മ്യൂണിക്കേഷനാണെങ്കിലും പരസ്പരം ഉള്ള ഇതാണ് പരസ്പരമുള്ള സംസാരിക്കാനുള്ള ഇതൊക്കെ ടെൻ്റന്സിയൊക്കെ കുറയുകയാണ് ഈ സാങ്കേതിക വിദ്യ കാരണം സംഭവിക്കുന്നത്